ആ ചേട്ടാ വരൂ അ വരൂ വരൂ അതേല്ലെ ഓക്കെ എങ്ങനത്തെ സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത് അതെയോ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കുള്ളത് ചെറിയ വണ്ടിയാണോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊൾ എത്ര വയസ്സായി കുട്ടിക്ക് ആ അപ്പോൾ ഒരു മീഡിയം സൈക്കളെടുക്കാല്ലേ ഏതാ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എത്രയാ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഗിയർ സൈക്കിള് വേണോ നോർമൽ സൈക്കിള് വേണോ ആ കുട്ടികൾക്കേതാ ഇഷ്ട്ടാ ഗിയർ സൈക്കിള് ഇപ്പൊൾ നമുക്ക് സ്റ്റാർട്ടിങ് വന്നൊര് എട്ടായിരം മുതല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറ്റ്ലസിൻ്റെ മോഡല് വരുന്നുണ്ട് അതിലിപ്പൊൾ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് ഒരു എ വേരിയൻറ്റും വരുന്നുണ്ട് പിന്നേ ഒരു ലൈറ്റ് ലൈറ്റ് മോഡലും വരുന്നുണ്ട് അതിലിപ്പോൾ ടൂബ് ലെസ്സ് ആ രണ്ടും കുഴപ്പമില്ല കുട്ടികൾക്ക് തന്നെയാണ് ഇപ്പൊൾ രണ്ട് വേരിയൻറ്റും അവർക്കു പറ്റാവുന്ന തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ലൈറ്റ് വെയിറ്റാണ് ടൂബ് ലെസ്സ് ടയേഴ്സാണ് നല്ല സ്ലിം പെയേർസാണ് വരുന്നത് ഇപ്പോ അത്യാവശ്യം ഒരു പത്ത് അറുവത് കിലോ ഒക്കെ താങ്ങുന്ന സൈക്കിള് തന്നെയാണ് ഇതിലിപ്പൊൾ വന്ന് ആ അതെ ഇപ്പൊൾ ഇതില് വന്നിട്ടു മുന്ന് ഇൻടു ഏഴ് ആണ് വരുന്നത് ഫ്രണ്ടില് മൂന്ന് ബാക്കില് ഏഴ് അങ്ങനെ ഇരുപത്തൊന്ന് ഗിയർ മോഡല് വരുന്നുണ്ട് ഇതില് പിന്നെ അഡീഷണലായിട്ട് നമ്മുക്ക് ചെറിയ പുതിയ സെറ്റ് ഇപ്പൊൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൂടൂത്ത് സെറ്റ് മറ്റേ ഇതിൻ്റെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതില് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല എൽ ഇ ഡി ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് ചെറിയൊരു ഏതാണ് ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട് നമ്മുടെ ഹെഡ് ലൈറ്റും ഹെഡ് ലാമ്പ് പോലത്തെ ചെറിയൊരു സെറ്റും വരുന്നുണ്ട് ഇപ്പൊൾ പുലർച്ചെ ഒക്കെ ഓടിക്കാൻന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ണ് കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട് അതിനകത്ത് ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊൾ ഹെർക്കുലീസിൻ്റെ വരുന്നുണ്ട് ഹെർക്കുലീസിൻ്റെയും ഹെർക്കുലീസിൻ്റെ പക്ഷെ വല്ലിയ മോഡലാണ് വെരുന്നത് ഹീറോൻ്റെ ഇതേപോലത്തെ ചെറിയ കുട്ടികൾക്ക് വരുന്ന മോഡൽ വരുന്നുണ്ട് അതിന് വന്നിട്ട് പക്ഷെ കുറച്ച് വെ വിലക്കൂടുതലാണ് പതിന്നാലെ എണ്ണൂറാണ് അതിൻ്റെ മോഡല് വരുന്നത് പതിനാലെ എണ്ണൂറ് വരും ഹീറോണ്ട് ഹീറോണ്ട് ഹെർക്കുലീസ് വലിയ വണ്ടിയാണ് ഒര് വണ്ടിയാണ് വരുന്നത് അത് വേണ്ട അത് വേണോ ആ ഓക്കെ അപ്പൊൾ ഈ ഹീറോൻ്റെ മോഡല് വന്നിട്ട് പതിന്നാലെ അഞ്ഞൂറാണ് വരുന്നത് അത് അത് കുറച്ചുംകൂടെ ഗിയർ ഷിഫ്റ്റ് കൂടുതൽ ഉള്ളതാണ് നാല് ഏഴാണ് അപ്പൊൾ ഇരുപത്തെട്ട് ഗിയ ഗിയറിൻ്റെ വർക്കിംഗ് വരുന്നുണ്ട് അതിനകത്ത് ഇതേപോലത്തന്നെ ഒര് ഹെഡ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റവും വരുന്നുണ്ട് അതിനകത്ത് പിന്നെ ഇതില് ടയറ് നല്ല പക്കാ ക്വാളിറ്റി ടയേഴ്സാണ് ഒരു കൊല്ലത്തെ വാറൻറ്റിയും ഉണ്ട് ഇതിന് ടയറിനും കാര്യങ്ങൾക്കും ടൂബ് ലെസ്സാണ് ഓ മെയ്റ്റനൻസ്ന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാർനെ ഇപ്പൊൾ എല്ലാ വണ്ടികൾക്കും നമ്മള് മെയ്റ്റനൻസ് അതായത് സൈക്കളാവുമ്പോൾ മൂന്ന് മാസം വരെ ഇതിന് മെയ്റ്റനൻസും കാര്യങ്ങളും ഒക്കെ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ഒരു മാസം ഫ്രീ മെയ്റ്റനൻസാണ് ഇതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ നമ്മുക്ക് ഫ്രീ ആയിട്ടു ചെയ്തുതരും പിന്നെ നിങ്ങടെ പെയ്ഡ് മെയ്റ്റനൻസാണ് അപ്പാ ര ഒന്ന് രണ്ട് അതായത് മെയ്റ്റനൻസ് മാത്രമെ നമ്മള് ചെയ്തു തരുള്ളു സാധനങ്ങള് ഇതക്കെ നിങ്ങള് പൈസ എന്തെങ്കിലും ഇപ്പൊൾ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങളന്നെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ബാക്കി നമ്മള് മെയ്റ്റനൻസ് നമ്മള് ഫ്രീ ആയിരിക്കും അതെ പാർട്സ് മേടിക്കണം ബാക്കി നമ്മള് ഫ്രീയായിട്ടു ചെയ്തുതരും അപ്പൊൾ നമ്മക്ക് ഏതാ ഇതില് എടുക്കണ്ടെ ചേട്ടാ ഹീറോ എടുക്കണോ അതോ അറ്റ്ലസിൻ്റെ എടുക്കണോ ഏതാ എടുക്കണേ ഹീറോ മതീല്ലേ ആ ഓക്കെ അപ്പൊൾ ഇതില് ഏത് കളറാണ് വരണ്ടത് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ്ഡ്ണ്ട് ബ്ലൂ ഗ്രേ മിക്സ് അത് സ്റ്റോക്കുണ്ടോന്ന് നോക്കട്ടെ നമുക്ക് കമ്പനി ഗരേജിൽ ഉണ്ടോന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ രണ്ട് ദൂസത്തിനുള്ളെ നമ്മക്ക് വരുത്താനുള്ള സംവിധാനം ചെയ്യാം ഓക്കെ ശെരി ചേട്ടാ